എൻ്റെ മകൻ വിവാഹ പ്രായം ആയി ആയി നിൽക്കുകയാണേ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വരുന്ന മരുമകൾ സ് സ്ത്രീധനം ഞാൻ ചോദിക്കാറില്ല അവരവരുടെ മക്കൾക്ക് അവരവർ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം ഉള്ളത് കൊടുക്കുക കാരണം ഇന്നത്തെ കാലത്ത് ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ കുടുംബങ്ങൾ ഒത്തിരിയേറെ വിവാഹബന്ധം നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മരണപരമായ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇന്ന് മനുഷ്യന് സ്നേഹത്തിന് പകരം പണമാണ് കൂടുതലായി ആഗ്രഹിക്കുന്നത് പിന്നെ സ്വർണത്തോട് ഒത്തിരി താല്പര്യം വസ്തു പിന്നെ അലമാരി അങ്ങനെ ഒത്തിരി ഒത്തിരി യാത്ര പോകാനുള്ള വ കാര്യങ്ങൾ പിന്നെ വീട് സ്ഥലം അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളാണ് ഇന്നത്തെ മക്കൾ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ മക്കൾ അല്ല ആഗ്രഹിക്കുന്നത് ഈ കല്യാണം കഴിക്കുന്ന പയ്യൻ്റെ മാതാപിതാക്കന്മാരാണ് അവരാ അവരിലൂടെയാണ് ഇന്ന് കുടുംബജീവിതം ഒത്തിരി താറുമാറായിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന് പരസ്പരം സ്നേഹമാണ് ഏറ്റവും കൂടുതൽ ഈശോ പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നാണ് അതിൽ കൂടുതൽ ലോകത്ത് നമുക്ക് ഒന്നുമില്ല വരുന്ന മകളെ നമ്മൾ സ്വന്തം മകളായി കാണാനും നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ സ്രീ സ്ത്രീ എന്നാണ് പറയുന്നത് സ്ത്രീ ധനം ആണെന്നാണ് പറയുന്നത് അങ്ങനെ സ്നേഹമുള്ളവർക്ക് മാത്രമേ ഈ മരുമക്കളെ നമുക്ക് സ്വന്തമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ള മക്കളെ ത് നമ്മുടെ സ്വന്തം പെണ്മക്കളാണെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ വരുന്ന മരുമകളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം ഇതിലൂടെ കുടുംബജീവിതം സന്തോഷപരമാവാൻ ഇടയാകട്ടെ ജോലിയുള്ള സ്ത്രീകളാണ് ഇന്ന് കൂടുതലും കാരണം ഇന്ന് എല്ലാ മക്കളും പഠിച്ച് നല്ല ജോലിയുണ്ട് അവർ ജീവിക്കാനുള്ള എല്ലാം അവർക്കുണ്ട് അതുകൊണ്ട് ഞാൻ പ എൻ്റെ ജീ എൻ്റെ കഥ ഇതിലാണ് പറയുന്നത് മക നമ്മൾ പരസ്പരം സ്നേഹിക്കാനും വരുന്ന മരുമകളെ സ്വന്തമായിട്ട് കാണാനും ദൈവം എല്ലാവരേയും സ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു